കുട്ടികളെ മലയാളം പഠിപ്പിക്കണം കാരണം ഞാനൊരു മലയാളിയായതു കൊണ്ട് കുട്ടികൾ മലയാളം അറിഞ്ഞിരിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടും ഞാനെൻ്റെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ ഒരു മലയാളം സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ കുട്ടികൾ മലയാളത്തെ കുറിച്ചുള്ള അറിവ് കൂടുന്നതിന് വേണ്ടി സാധാരണ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എൻ്റെ കുട്ടിയെ ചേർത്തിരുന്നത് എങ്കിൽ സാ അവരുടെ ചിന്താശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ തീർച്ചയായും ഒരു മലയാളം മീഡിയത്തിലാണ് ചേർത്തത് അത് കൂടാതെ അവർക്ക് ആവശ്യമായ പത്രങ്ങൾ ലഗു കുറിപ്പുകൾ എന്നിവയൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ മലയാളത്തോടുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കാണ് ചെയ്യുന്നത് ഒരു സാധാരണ ഇംഗ്ലീഷ് സ്കൂളിലാണെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല അതുകൊണ്ട് നിർബന്ധമായും ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഒരു വിഷയമെങ്കിലും ഈ മലയാളം ആക്കുവാൻ ഞാൻ തീർച്ചയായും പറയും